ഹലോ സൂപ്പർ മാർക്കറ്റല്ലേ ആ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാനൊരു സാധനം മേടിച്ചിട്ട് അത് കംപ്ലയിൻ്റ് ആയിപ്പോയല്ലോ ഒരു വാഷിംഗ് മെഷീൻ ആണ് മേടിച്ചത് നിങ്ങൾ ഓൺലൈൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അത് അവിടെ നിന്ന് മേടിച്ചത് ഇല്ല വന്നില്ല ആരും വന്നില്ല രണ്ട് ദിവസമായി

ചുരം ബക്ക്ലോ പനവല്ലി പി ഒ തിരുനെല്ലി ആ വേഗം ചെക്ക് ചെയ്യുമോ വേണ്ട നിങ്ങൾ ആദ്യം നന്നാക്കി തന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതി വേഗം വേണം രണ്ടു ദിവസായി ഇരുപത്തഞ്ച് ഒന്നും അല്ല ഞാൻ എടുത്തത് ഞാൻ ഇരുപത്താറാം തീയ്യതി ആണ് എടുത്തത്

ഇല്ല ആരും വന്നില്ല ഞാൻ കുറേ പ്രാവശ്യം

അല്ല നിങ്ങളെ ഞാൻ കുറെ നോക്കിയിരുന്നു ഇന്നലെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നു നിങ്ങളെ സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളെ വിളിച്ചാൽ മതിയെന്ന് ആ വേഗം വേണം എനിക്ക് സമയം ഇല്ല എനിക്ക് നാളത്തെ ഫ്ലൈറ്റിന് ഡെൽഹി പോകാനുള്ളതാണ് അതിനു മുമ്പ് റെഡിയാക്കണം നിങ്ങളെ സ്ഥലത്താണ് എന്നു പറഞ്ഞിട്ട് നിങ്ങളെത്തന്നെ വിളിച്ചാൽ മതിയില്ലേ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ രണ്ടുവർഷം വാറൻ്റിയും തന്നിട്ടുണ്ട് ആ മേടിച്ചിട്ട് അധികം ദിവസം ആയില്ലല്ലോ പറ്റില്ല എനിക്ക് അത് ഇന്നുതന്നെ അറിയണം നാളെ പോണം എന്നു പറഞ്ഞില്ലേ എന്നാൽ വേഗം വിളിക്ക് വേഗം വേണം

എന്നാൽ ഞാൻ നാളെ അങ്ങോട്ട് വരാം ബാക്കി എന്നാൽ അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം ഓക്കെ എന്നാൽ